ഞാൻ കോഴിക്കോട് നിന്നാണ് എനിക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരുന്നു അത് വയനാട്ടിലേക്ക് ഉള്ള പോകാൻ വേണ്ടിയിട്ടാ വയനാട് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ വരുന്ന മാസം ഈ വരുന്ന മാസം ഈ ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടിന് പോകാനായിരുന്നു വൺ വീക്ക് ഉണ്ടാകും ഞാൻ ടൂറിസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ അപ്പൊ എനിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടീട്ട് വിളിച്ചതാണ് ഞാൻ തീയതി ഈ ഒരു മാസം ഇരുപത്തി ഒമ്പതിന് പോകാൻ വേണ്ടീട്ടാ ഇരുപത്തി ഒമ്പതിന് പോകാൻ വേണ്ടീട്ടായിരുന്നു ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്ത് മണിക്കാണ് പോകേണ്ടത് അപ്പോ അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ വിളിച്ചത് ഇരുപത്തി ഒമ്പതിന് പോയിട്ട് ഒക് നവംബർ നാലിനാണ് വരികയുള്ളൂ അത്രയും ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് അപ്പോ അതിൻ്റെ ശരിക്ക് ലൊക്കേഷൻ ഞാൻ ഉള്ളത് കോഴിക്കോട് ബേപ്പൂര് ആണ് ഉള്ളത് എനിക്ക് അവിടുന്ന് വയനാട്ടിലേക്കാണ് പോകേണ്ടത് വയനാട്ടിൽ കുറേ പ്ലേസിലേക്ക് പോകാനുണ്ട് കുറേ പ്ലേസിലേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് നാല് ദിവസത്തെ ഒരു ട്രിപ്പ് പാക്കേജ് പോലെ ആയിട്ടാണ് ഉള്ളത് അപ്പൊ അതിനുവേണ്ടി ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ വിളിച്ചത് ലാസ്റ്റേ പോകുള്ളൂ അത് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തതാണ് ഒരുപക്ഷേ കൂടുതലായി പോകുന്നുണ്ടെന്നുള്ളതുകൊണ്ട്